ഹലോ ഇതു സ്വിഗ്ഗി അല്ലെ ഞാൻ ഹരിറാം ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് വേണ്ടി മൂന്ന് ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഉള്ള ഗസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഒരു ഗസ്റ്റ് ഇല്ലാത്തതിനാൽ അതിൽ ഒരു ബിരിയാണി എനിക്ക് ക്യാൻസൽ ചെയ്യണം അതിൻ്റെ പൈസ ക്യാഷായിട്ടോ അല്ലെങ്കിൽ പേപ്പാൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് എനിക്ക് തരേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു